എനിക്ക് പ്രിയപ്പെട്ട ചില ബൈക്കുകൾ പൾസര് ഗ്ലാമര് യൂനികോണ് ബുള്ളറ്റ് ഇതൊക്കെയാണ് എന്നാൽ സ്കൂട്ടറുകളിൽ ആക്സസ് ആക്റ്റീവ തുടങ്ങിയ സ്കൂട്ടികളാണ് എനിക്ക് ഇഷ്ടം ബൈക്കുകളേക്കാൾ സ്കൂട്ടറുകളാണ് എനിക്ക് എടുക്കാൻ താൽപര്യം കാരണം അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്കു നൽകുക എനിക്ക് ഇപ്പോള് ബൈക്കുള്ളത് പൾസറാണ് വളരെ നല്ല രീതിയിൽ ഞാൻ അത് ഓടിക്കാറുണ്ട് എന്നും നിത്യേനെ രാവിലെ എഴുന്നേറ്റ് കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ റോട്ടിലേക്ക് ഇറങ്ങും എല്ലാ ദിവസവും എനിക്കു നൽകുന്നതു വളരെ സന്തോഷമായിട്ടുള്ള ഒരു റൈഡിംഗ് എക്സ്പീരിയൻസ് അനുഭവമാണ് ഈ പൾസര് എനിക്കു നൽകുന്നത് എൻ്റെ സ്വപ്ന ബൈക്ക് അത് ബുള്ളറ്റാണ് കാരണം ഒരുപാട് ആളുകളുടെ അടുത്ത് ധനികരുടെ അടുത്തുള്ള ഒരു ബൈക്കാണ് ബുള്ളറ്റ് എന്നുള്ളത് ഇന്ന് മാർക്കറ്റിൽ ഒരുപാടു വിറ്റഴിഞ്ഞുപോകുന്ന എന്നാൽ വളരരെ വില കൂടിയതുമായിട്ടുള്ള ഒരു ബൈക്കാണ് ബുള്ളറ്റ് ഈ ബുള്ളറ്റാണ് എൻ്റെ ഏക സ്വപ്ന ബൈക്ക് എന്നാൽ ബൈക്ക് യാത്രകൾക്കു സൗകര്യപ്രദമായ ബൈക്കുകൾ വേറെയും പലതുണ്ട് ബുള്ളറ്റിനു പുറമേ പൾസര് ഗ്ലാമര് അതുപോലെ സ്കൂട്ടറുകളാണെങ്കിൽ ആക്റ്റീവ ആക്സസ് തുടങ്ങിയ ബൈക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യപ്രദമായ ആവശ്യാനുസരണം നമുക്കു വേണ്ട വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന യാത്ര യാത്രകൾക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനക്ഷമതയോടു കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ബൈക്കുകളാണ് ഈ പൾസര് ബുുള്ളറ്റ് ഗ്ലാമര് യൂണിക്കോൺ എന്നീ ബൈക്കുകളൊക്കെ അതുകൊണ്ടുതന്നെ ഈ ബൈക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോള് വളരെ സൂക്ഷിച്ചും കണ്ടറിഞ്ഞും കാരണം ഇതൊക്കെ ബൈക്ക് ബൈക്കുകളാണ് കാറുകളല്ല എന്ന ഒരു തിരിച്ചറിവ് ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ലോകത്തുണ്ടാകുന്ന ഒട്ടുമിക്ക എല്ലാ ആക്സിഡന്റുകളും അപകടങ്ങളും റോഡുകളിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ പൊതുവേ ഈ മോട്ടോർ സൈക്കിളുകൾ ബൈക്കുകൾ മുഖേനെയാണ് ഉണ്ടാവുന്നത് കാരണം വളരെ സൗകര്യം സുരക്ഷിതം കുറഞ്ഞ ഒരു വാഹനമാണ് ബൈക്കുകൾ എന്നാൽ യാത്രകൾക്കു സൗകര്യപ്രദമായ ബൈക്കുകളും ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട്